ദീപാവലി ആഘോഷിക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ദീപങ്ങളും വീടുകളിലും മാത്രമല്ല അമ്പലങ്ങളിലും ദീപങ്ങളൊക്കെ കൊ കൊളുത്തിവെച്ചിട്ട് എണ്ണയൊക്കെ ഇട്ട് തിരിയൊക്കെ ഇട്ട് എല്ലാ ദിവസവും ദീപാവലി ദീപാവലി ദിവസം എല്ലാവരും ആഘോഷിക്കുന്നത് എണ്ണ എണ്ണ ഒഴിച്ച് തീ ഒക്കെ കൊളുത്തി തിരി കത്തിച്ച് ആഘോഷിക്കുന്നു മൺചിരാതിലാണ് കൂടുതലായിട്ടും ഞങ്ങളുടെ ഇവിടെയൊക്കെ കൂടുതലായിട്ടും മണ്ചിരാതാണ് പിന്നത് തന്നെയല്ല വീട് നമ്മൾ ഇലട്രിക്ക് മറ്റേ സ്റ്റീരിയോ സെറ്റൊക്കെ വെച്ചിട്ടലങ്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഉടുപ്പ് പുത്തനുടുപ്പുകള് കുട്ടികൾക്ക് പുത്തനുടുപ്പുകളിടുന്നുണ്ട് പിന്നെന്താണ് പറയുക എല്ലാവരും മധുരപലഹാരങ്ങള് പങ്ക് വെച്ച് ദീപാവലി പലഹാരം ദീപാവലി സ്വീറ്റ്സ് തന്നെ പങ്കുവെച്ചിട്ടതൊരിപ്പോൾ ഒര് ട്രെന്ഡായി തീര്ന്നേക്കുവാണ് അപ്പോൾ അങ്ങനെ അത് പങ്കുവെച്ചിട്ട് ആഘോഷിക്കുന്നു അതുപോലെ പടക്കം പൊട്ടിച്ചും ഒക്കെ എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നത് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഒരറിവനുസരിച്ച് ദീപാവലി ആഘോഷിക്കുന്നത് ശ്രീരാമന്റെ രാമായണത്തിലെ ശ്രീരാമന്റെ വനവാസം കഴിഞ്ഞ് പതിനാല് വര്ഷത്തിന് ശേഷം ശ്രീരാമനും സീതയും അയോദ്ധ്യയിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷസൂചകമായിട്ട് അയോദ്ധ്യാവാസികള് ദീപം കൊളുത്തി അത് നിറച്ച് വീടും ഇതേപോലെ തന്നെ ദീപാലം ദീപം കൊണ്ടലങ്കരിച്ചവരെ സ്വീകരിച്ചതിന്റെ ശ്രീരാമനേയും സീതാദേവീയേയും മാത്രവല്ല ലക്ഷ്മണ സാ ലക്ഷ്മണെനെ അങ്ങനെ അവരെയൊക്കെ സ് സ്വീകരിച്ചതിന്റെ ഒരോര്മയായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്നാണ് എന്റെ അറിവ് പിന്നതുപോലെ തന്നെ അടുത്തൊരുത്സവം എന്ന് വേണേല് പറയാവുന്നത് ഹോളിയാണ് ഹോളീ എന്ന് പറഞ്ഞാൽ എന്താണ് നിറങ്ങള്ടെ ഉത്സവമാണ് ഇത് നന്മയുടെ മേലെത്തിന്മെ തിന്മ സോ അങ്ങനെയല്ല തിന്മയുടെ മേലെ നന്മയുടെ വിജയമാണ് ഹോളി ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ പരസ്പരം എന്താ പറയുക വര്ണ്ണങ്ങള് വാരിവിതറി നമ്മുടെ മുഖത്തൊക്കെ വര്ണ്ണങ്ങള് വാരിത്തേച്ചും അങ്ങനെയൊക്കെയാണ് നമ്മള് ഹോളി ആഘോഷിക്കുന്നത് പിന്നെ അടുത്തത് നവരാത്രി നവരാത്രി എന്ന് വെച്ചാൽ ഒമ്പത് രാത്രികളുടെ ഉത്സവമാണ് നവരാത്രി എന്ന് പറയുന്നത് ശെരിക്കും ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെയാണ് അവിടെ പൂജിക്കുന്നത് പിന്നെ നവരാത്രി ദി എല്ലാ അവസാനം മഹാ വിജയദശമി മഹാനവമി ദിവസങ്ങള് വരുന്നുണ്ട് ദിവസങ്ങള് പുസ്തകവും ആയുധം ആയുധങ്ങളൊക്കെ പൂജയ്ക്ക് വെക്കുന്നു പിന്നെ വിജയദശമി ദിനത്തില് കുട്ടികളാദ്യമായിട്ടക്ഷരത്തിന് നാവും നാവിന്മേലക്ഷരം കുറിക്കുന്നത് വിജയദശമി ദിനത്തിലാണ് വെ നമ്മുടെ അവധിദിവസങ്ങള് എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട അവധി ദിവസം എന്ന് പറയുന്നത് നമ്മുടെ നാഷ്ണല് ഹോളിഡേയ്സ് എന്ന് പറയാനായിട്ട് നമ്മള് എന്താ പറയുക ഓഗസ്റ്റ് പതിനഞ്ച് അതുപോലെ ജനുവരി ട്വൊന്റി സിക്സ്ത്ത് ക്രിസ്തുമസ് അതൊക്കെയാണ് ശെരിക്കും പറഞ്ഞാൽ ക്രിസ്തുമ നമ്മുടെ ഒരു നാഷ്ണല് ഹോളിഡേയ്സ്സൊക്കെ നമ്മളാഘോഷിക്കുന്നത് ഇപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മളെല്ലായിടത്തും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ഇതുപോലെ മധുരപലഹാരങ്ങള് വിതരണം ചെയ്യുന്നു റാലികള് സംഘടിപ്പിക്കുന്നു സ്കൂളിലാണെങ്കിൽ നമ്മുടെ ദേശിയപതാക ഉയര്ത്തുന്നു അവര് എന്തൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മള് ഇന്റിപ്പെന്റന്സ് ഡേ ആഘോഷിക്കുന്നത് പിന്നെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഗണേശ ചതുര്ഥി ഇന്ഡ്യയിലെ ഒര് പ്രധാനപ്പെട്ട ഉത്സവമാണ് നമ്മള് ഗണേശന്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഗണേശ ഭഗവാന്റെ പ്രതിമകൾ ഉണ്ടാക്കി പൊതുസ്ഥലങ്ങളിലോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥല വീടുകളിലും വെച്ചിട്ട് ഇതിന്റ അവസാന ദിവസം നമ്മളേതെങ്കിലും ജലാശയങ്ങളില് കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മള് ഗണേശചതുര്ഥി ആഘോഷിക്കുന്നത്